എൻ്റെ ഒരു അഭിപ്രായത്തിൽ താമസം ഗതാഗതം അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച രീതിയിൽ മെച്ചപ്പെട്ട് വരുന്ന കാലമാണ് ഇത് പിന്നെ ഹോം സ്റ്റേ ഹോം സ്റ്റേയൊക്കെ നിലവിൽ കുറേ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വാഹന സൗകര്യങ്ങളും പ്രൈവറ്റ് ടാക്സികളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മെട്രോ പിന്നെ ബസ്സുകളൊക്കെ അതിൽ ഇപ്പോൾ വളരെ അധികം കൂടുതലാണ് നമ്മുടെ ഈ കാലത്ത് വളർന്ന് വരുന്നു കൊണ്ടിരിക്കുന്ന ട്രെയിനുകളും ബസ്സുകളും മെട്രോ അങ്ങനെ ബൈക്കും കാറും എല്ലാം നമുക്ക് ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ ഓൺലൈൻ വഴി നമുക്ക് ഊബർ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമുക്ക് ബുക്ക് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അത് വന്ന് നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ട് പോകാനൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ ആണ് നമുക്ക് പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ പുറം രാജ്യത്ത് നിന്ന് വന്നവർക്ക് കൂടുതൽ എന്താണ് പറയുക അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കാനും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒക്കെ അതിന് വേണ്ടി കൂടുതൽ നിലനിൽക്കുക നില നിന്നു വരും ഈ ഇനി ഈ വരുന്ന കാലങ്ങളിൽ പുതിയതായിട്ട് വരുന്ന കാലങ്ങളിലും ഇതൊക്കെ വളരെ അധികം മൂർച്ച ഏറിക്കൊണ്ടിരിക്കും പിന്നെ എന്താണ് ഐ ആർ ടി സി റെഡ് ബസ് ഒക്കെ കുറച്ച് കൂടി കൂടുതൽ ഉപയോഗിക്കുക ആണെങ്കിൽ നമുക്ക് ടൂറിസം മേഖലകയിൽ കുറച്ച് കൂടുതൽ ഉപകാരികമാകും